ആ എനിക്ക് നീന്താനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബീച്ചുകളിലൊക്കെ ആണ് പോയിട്ട് കൂടുതലായിട്ടും നീന്താനുള്ള ആഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ പക്ഷേ നമുക്ക് ബീച്ചുകളിൽ ഓവർ നീന്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്താണെന്നു വച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് തിരമാല അടിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെയെന്നു പറഞ്ഞാൽ നമ്മൾക്ക് കുളവും പുഴയും അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും നീന്താനൊക്കെ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഞാൻ എൻ്റെ കസിൻസിൻ്റെ ഒക്കെ കൂടിയിട്ട് കൂടെയാണ് ഞാൻ കൂടുതലായിട്ടും പോയിട്ട് നീന്താറുള്ളത് പിന്നെ എൻ്റെ താഴെയുള്ള ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ കൂടെയാണ് ഞാൻ പോയിട്ട് നീന്താറുള്ളതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും പുഴയിലൊക്കെയാണ് പോയിട്ട് നീന്താറുള്ളത് പിന്നെ കൂടുതലായിട്ടും അതായത് കുളം കുളത്തിലൊക്കെ പോയിട്ടാണ് ഞങ്ങൾ ഈ അപ്പോൾ പുഴയിലൊക്കെയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നല്ല രീതിയിൽ വറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ നമ്മൾക്ക് അവിടെയെന്നു പറഞ്ഞാൽ അത്യാവശ്യം ആഴവും കാര്യങ്ങളൊന്നുമില്ല നമ്മളെ മുട്ടിൻ്റത്രയൊക്കെ വെള്ളം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് നീന്തുവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ അത്രയുള്ള വെള്ളം ആയതുകൊണ്ട് നമുക്ക് കല്ലിലൊക്കെ നമ്മൾ തട്ടിയിട്ട് കാലും കൈയ്യുമൊക്കെ മുറിയുവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടും കുളത്തിലൊക്കെയാണ് പോയിട്ട് നീന്താറുള്ളതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഇവിടെ അടുത്ത് ഇഷ്ടം പോലെ കുളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്